മാരുതി സുസുക്കി ടാറ്റാ മോട്ടർസ് മഹേന്ദ്ര ഹുണ്ടായ് ഹോണ്ടാ കാർസ് ഇന്ത്യ ടൊയോട്ട ഇന്ത്യ കിയ ഇന്ത്യ റനോൾഡ് ഇന്ത്യ സ്കോഡ ഇന്ത്യ ഓക്സ്വാഗൺ ഇന്ത്യ മെർസിഡിസ് ബെൻസ് ബി എം ഡബ്ല്യൂ ഡി പോർഷെ ലംബോർഗിനി ഫെറാറി റോൾസ് റോയ്സ് ജാഗ്വാർ ലാൻഡ് റോവർ